ഇന്ത്യയുടെ തെക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന കേരളത്തെ നമ്മൾ പലപ്പോഴും ദൈവത്തിൻ്റെ സ്വന്തം നാടായാണ് അറിയപ്പെടുന്നത് കേരളത്തിലെ പല പല അമ്പലങ്ങളും പള്ളികളും എല്ലാം അമ്പലങ്ങൾ പള്ളികൾ എല്ലാം അടങ്ങിയ ഒരു നാടാണ് കേരളം കേരളത്തിലെ പുഴകളും പാടങ്ങളും എല്ലാം നിറഞ്ഞൊരു നാടാണ് കേരളം അപ്പോൾ കേരളത്തിലെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ കലയുടെ രൂപത്തിൽ പറയുകയാണെങ്കിൽ മോഹിനിയാട്ടം കഥകളി കുച്ചിപ്പുടി ഭരതനാട്യം തിരുവാതിരക്കളി ഇങ്ങനെയുള്ള ഓരോരോ കലാരൂപങ്ങളുള്ള ഒരു നാടാണ് കേരളം അമ്പലങ്ങളിലായിക്കോട്ടെ കെട്ടിയാടി അമ്പലങ്ങളിൽ നിന്ന് കെട്ടിയാടി നടക്കുന്നൊരു നാടാണ് കേരളം കേരളത്തിൽ ഭാഷയെക്കുറിച്ച് പറയുകയാണെങ്കിൽ കേരളത്തിൽ നമ്മളിപ്പം മലയാളം സംസാരിക്കുകയാണെങ്കിൽ പല ഭാഷ മലയാളത്തിൽ തന്നെ പല രീതികളിലാണ് ഓരോ നാട്ടിൽ സംസാരിക്കുക ഇപ്പോൾ തൃശ്ശൂർ പോവുകയാണെങ്കിൽ തൃശ്ശൂർ സ്റ്റൈലിൽ തിരുവന്തപുരത്താണെ തിരുവനന്തപുരത്ത് അവരുടേതായ സ്റ്റൈലിൽ ഞമ്മളിപ്പോൾ കണ്ണൂരാണെ കണ്ണൂര് അവരുടേതായൊര് രീതിയിലാണ് നമ്മൾ സംസാരിക്കുക അപ്പോൾ നമ്മൾ കണ്ണൂരിൽ നിന്ന് തൃശ്ശൂർ പോവുകയാണെങ്കിൽ അവർക്ക് നമ്മൾ എല്ലാ ഭാഷകളും നമ്മളിപ്പോൾ പറയുന്നത് അങ്ങോട്ടവർക്ക് എല്ലാം തിരിയില്ല അവരും മലയാളം തന്നെയാണ് സംസാരിക്കുന്നത് നമ്മളും മലയാളം തന്നെയാണ് അപ്പോൾ നമ്മൾ ഓരോരോ വാക്കുകളിൽ ഓരോ വ്യത്യാസങ്ങളുണ്ടാകും അവർ പറയുന്നതിൽ നമുക്കും ചില വാക്കുകളിൽ തിരിയാനും ഒക്കെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് അപ്പം അങ്ങനെയുള്ള ഒരു നാടൊക്കെയാണ് കേരളം കേരളത്തിലെ കൈത്തറി കൈത്തറി വസ്ത്രങ്ങളൊക്കെ കേരളത്തിൽ നിന്നാണ് നെയ്ത് ഉണ്ടാക്കുന്നത് പട്ടുസാരി അങ്ങനെ ഉള്ളതൊക്കെ കേരളത്തിൽ നിന്നാണ് നമ്മൾ നെയ്ത് ഉണ്ടാക്കി കൊണ്ടു വരുന്നത്